യൂട്യൂബിലൊക്കെ ഇപ്പോൾ നമ്മൾ കൂടുതലും എന്താണ് പറയുക ഇങ്ങനെ ഫുഡ് ഒക്കെ കുക്ക് ചെയ്യുന്നതൊക്കെ നോക്കുന്നത് ഏതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ സാധാരണ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താണ് പറയുക ഫോർ ടെക്ക് അങ്ങനത്തെ ചാനലൊക്കെയാണ് കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് പിന്നെ എന്താണ് പറയുക വേറൊരു ടീം ഉണ്ട് അതിൻ്റെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല പുള്ളി ഒരുപാട് ഫുഡ് ഒക്കെ കുക്ക് ചെയ്ത് പാവപ്പെട്ടവർക്കും പരിസരത്ത് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ചാനലുകളൊക്കെയാണ് ഞാൻ കൂടുതലും കാണുന്നത് പിന്നെ പുതിയ പുതിയ എന്താണ് പറയുക ചൈനക്കാരൊക്കെ ഓരോ അവരുടെ ഡിഷുകളും കാര്യങ്ങളും എന്താണ് പറയുക ഈ പുഴയിൽ നിന്നൊക്കെ മീനുകളെയൊക്ക പിടിച്ചിട്ട് ഈ എന്താണ് പറയുക ഈ തോടിൻ്റെ അരികിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുണ്ടാക്കുന്നത് ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ നമ്മൾ ടി വിയിലും ഇതിലൊക്കെയായിട്ട് നമ്മൾ കാണ കാണാറുണ്ട് അപ്പോൾ അതുപോലത്തെയൊക്കെ നമ്മൾ ട്രൈ ചെയ്യാറും അതൊക്കെ കണ്ടുപഠിക്കുന്നൊക്കെ ശ്രമിക്കലൊക്കെയുണ്ട് അപ്പോൾ അതെങ്ങനെ ഒക്കെയുണ്ട് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളുമൊക്കെ അറിയണമെന്ന് നമുക്ക് ആഗ്രഹം തോന്നിയിട്ടാണ് നമ്മളിത് ട്രൈ ചെയ്തുനോക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ ഉണ്ടാക്കുന്നതിനൊക്കെ എന്താണ് പറയുക നമ്മൾ ട്രൈ ചെയ്യുമ്പം നല്ല ടേസ്റ്റ് തന്നെയാണ് നമുക്കും തോന്നുന്നത് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യുബിലും ടി വിയിലുമൊക്കെ നോക്കി എന്താണ് പറയുക കാണാറും പഠിക്കാറും ഒക്കെയുണ്ട്